നല്ല ഫോട്ടോ പകർത്താനായിട്ട് നമ്മൾക്ക് ഒരു ഫോട്ടോഗ്രാഫി എന്നത് ഒരു സംബന്ധിച്ചിടത്തോളം നമ്മളെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ഒരു വെള്ളച്ചാട്ടം കണ്ടു എന്നു പറഞ്ഞാൽ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു റിവ്യു ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞ് നമ്മൾ പിക് എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ഫോട്ടോഗ്രാഫിക്ക് ഫോട്ടോഗ്രാഫർക്കും വേണ്ടത് നമ്മൾ കണ്ടു എന്നു പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളതാണ് നമ്മൾ എടുക്കുന്നത് എടുക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് കൂടുതലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നു പറഞ്ഞാൽ ഈ കുന്നുകൾ മലകൾ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മരങ്ങൾ അതുകളിനെ ഒക്കെ എടുക്കാൻ ആ ഒരു ബേസിൽ എടുക്കാൻ ഇഷ്ടമാണ് പിന്നെ എന്നു പറഞ്ഞാൽ കുറേ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ അവര് കാണിക്കുന്ന കുസൃതികള് അതിലൂടെ ഒക്കെ എടുക്കാൻ എനിക്ക് ഇഷ്ട്ടമാണ് പിന്നെ ആൾമോസ്റ്റ് നമ്മൾക്ക് ഇഷ്ട്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസിൻ്റെ തൃപ്തി ആ ഒരു ബേസിലാണ് ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കണ്ടാൽ എടുക്കും അത് ഇന്നത് എന്ന് എടുത്ത് പറയാൻ ഒന്നുമില്ല എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടും ഉണ്ട് ഒരു ഇത് വാട്ടർ ഫാൾസ് ആണെങ്കിലും മൗണ്ടൈൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഫാമിലി ഫോട്ടോ കല്യാണം എൻഗേജ്മെൻ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും ഫോട്ടോഗ്രാഫർ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാന് പോയി ചെയ്ത് കൊടുത്തിട്ടും ഉണ്ട് കൂടുതൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്